ഒരു വലിയ കൂട്ടം ആൾക്കാർക്കു വേണ്ടി പാചകം ചെയ്തിട്ടുണ്ടോ ഞാൻ പാചകം ചെയ്തിട്ടുണ്ട് അതിൽ പാചകം ചെയ്തിട്ടുണ്ട് അതൊരു സത്കാര വിം കാ കല്യാണം കഴിഞ്ഞതിനു ശേഷമുണ്ടാകുന്ന ഒരു സത്ക്കാരമായിരുന്നു ഒരു വിരുന്നായിരുന്നു അത് നല്ല ഭംഗിയായിട്ട് തന്നെ എനിക്ക് പല തരത്തിലുള്ള ഭക്ഷണങ്ങളുണ്ടാക്കാൻ സാധിച്ചു അൻപതോളം പേർക്ക് ഭക്ഷണമുണ്ടാക്കി അൻപതിൽ കൂടുതൽ ആളുകൾക്ക് തന്നെ ഭക്ഷണം ഉണ്ടാക്കി അതിൽ രണ്ട് വിധത്തിലുള്ള ചോറും അതിൽ ഒന്ന് ബിരിയാണി മറ്റൊന്ന് അറബിക്ക് റൈസുമായിരുന്നു അത് രണ്ടും കൂടാതെ അതിനോട് അനുബന്ധിച്ച് പല സൈഡ് ഡിഷസ്സുകളുമുണ്ടാക്കി സൈഡ് ഡിഷസ് എന്നുപറഞ്ഞു കഴിഞ്ഞാൽ ഗോപി മഞ്ചൂരിയൻ അതുപോലെതന്നെ അൽഫാം ബ്രോസ്റ്റ് ചിക്കൻ ഗ്രേവി ബീഫ് ഫ്രൈ ഇവയെല്ലാമുണ്ടാക്കി ഇതെല്ലാം ഒന്നിനോടൊന്ന് മെച്ചമായിരുന്നു ഡെസേർട്ട് ഐറ്റംസായിട്ട് പുഡിങ് അതുപോലെതന്നെ പുഡിങ് മൂന്ന് വെറൈറ്റി പുഡിങ് പൈനാപ്പിൾ ക്യാരറ്റ് മീ ചിക്കു ഇങ്ങനെയുള്ള പല പുഡ്ഡിംങ്ങുകളും അതുപോലെതന്നെ പായസം മറ്റുള്ള സ്വീറ്റ്സ് ഇതെല്ലാം ഉണ്ടാക്കി വളരെ ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങൾ ആയിരുന്നു അതെല്ലാം